ഹലോ ഇത് കേരളത്തിലെ ഗൈഡ് അല്ലേ ആ ഞാൻ കൊയമ്പത്തൂരിൽനിന്നാണ് വിളിക്കുന്നേരുന്നെ ആ ഞാൻ നെക്സ്റ്റ് വീക്ക് കേരളത്തിലേക്ക് ഒരു ട്രിപ്പ് വരുന്നുണ്ടേ അപ്പം ഞാൻ എങ്ങനെ ഡേറ്റ് നോർമൽ നമ്മളിപ്പോൾ പറയുവാണെങ്കിൽ ഇപ്പം നവംബർ ഒരു ട്വൽത് ഡേറ്റ് ആ ഒരു ടൈമിലേ വരുള്ളൂ ആ അപ്പോൾ നമ്മൾ കേരളത്തിലേക്ക് വരുന്നത് മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് വരുന്നതാണ് അപ്പോൾ എൻ്റെ ഫാമിലിയിൽ കുറച്ച് മെമ്പേഴ്സ് ഒക്കെ കൂടെ ഉണ്ടാകും അപ്പം നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പം കേരള അപ്പം നമ്മൾ മെയിൻ ആയിട്ട് വരുന്നത് എന്തിനാണെന്ന് വെച്ചുകഴിഞ്ഞാൽ കേരളത്തിൽ ഓൾമോസ്റ്റ് അത്യാവശ്യം സ്ഥലങ്ങൾ കാണാനും അവിടുത്തെ സീഫുഡ് കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാനും വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് അവിടുത്തെ സീഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നറിയാനൊക്കെയായിട്ടാണ് ഇപ്പം വിളിച്ചത് കാരണം നമുക്കവിടെ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള റെസ്റ്റോറന്റുകൾ കാര്യങ്ങളൊന്നും അങ്ങനെ വലിയ പരിചയം ഇല്ല അപ്പം നമുക്കെങ്ങനെയാണ് അവിടെ സീഫുഡൊക്കെ നൈസ് ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് ഒക്കെ എങ്ങനെയാണ് കിട്ടുവോ അവൈലബിൾ ആയിരിക്കുവോ ആണല്ലേ

ഓക്കെ ആ ഞാൻ കേട്ടിട്ടുണ്ട് ആലപ്പുഴ ആ അറിയാം ഒരുപാട് കായലും സ്ഥലങ്ങളൊക്കെ ഉള്ളതല്ലേ

ആ ഓക്കെ ആണല്ലേ ഉണ്ടല്ലേ ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ബെറ്റർ ആയിട്ട് തോന്നുന്നു അല്ലേ ഓക്കെ അപ്പം നമ്മുക്കവിടേക്ക് പോകുമ്പോൾ നമുക്കിപ്പോൾ റെസ്റ്റോറന്റ് കാര്യങ്ങളൊന്നും അങ്ങനെ താൽപര്യം ഇല്ല നമുക്കിപ്പോൾ മെയിൻ ആയിട്ട് നമ്മുടെ കൂടെ വല്ല ഷെഫോ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുവോ നമുക്കായിട്ട് പേഴ്സണൽ ആയിട്ടൊരു ഷെഫിനെയും കാര്യത്തിനെയൊക്കെ അറേഞ്ച് ചെയ്യാമോ നമുക്ക് ഫിഷും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പുറത്തുനിന്ന് മേടിക്കാം ഫിഷ് ഒക്കെ വേണമെങ്കിൽ നമുക്കിപ്പോൾ ഓക്കെ പറഞ്ഞോളൂ അതെ അതെ

ഉണ്ടാവും അല്ലേ ഓക്കെ

ഓക്കെ

ഓക്കെ നമുക്ക് ബഡ്ജറ്റ് ഒന്നും നമ്മൾ നോക്കുന്നില്ല അത്യാവശ്യം എത്ര എമൗണ്ട് ആയാലും നമുക്ക് പ്രശ്നം ഒന്നും ഇല്ല ബഡ്ജറ്റ് ഒന്നും നമ്മൾ നോക്കുന്നില്ല ആ ഇല്ല നമുക്കതൊരു വിഷയം അല്ല നമുക്കെത്ര വേണമെങ്കിലും സ്പെന്റ് ചെയ്യാം അപ്പം അതിനെക്കുറിച്ച് ഓക്കെ നമുക്ക് ക്വാളിറ്റിയിൽ ഒരു കാരണവശാലും ഓക്കെ നമുക്ക് ക്വാളിറ്റിയിൽ ഒരു കാരണവശാലും ഇതാവാൻ പാടില്ല ബാക്കിലോട്ട് പോകാൻ പാടില്ല അത്യാവശ്യം ഫാമിലിയിൽ ഉള്ളവരാണല്ലോ അപ്പോൾ ഫുഡിൻ്റെ ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം നല്ല ഓക്കെ പിന്നെ റൂംസും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ അറേഞ്ച് ചെയ്യില്ലേ ഓക്കെ നമുക്ക് റൂംസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ആ ഓക്കെ ഉണ്ടല്ലേ ഓക്കെ അപ്പോൾ ഞാനെന്തായാലും ട്വൽത്തിലേക്കൊക്കെ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം ആ ഒരു ടൈമിലെന്തായാലും ഒരു രണ്ട് ദിവസം മുൻപ് വരുന്നതിന് രണ്ട് ദിവസം മുൻപ് നിങ്ങളെ ഞാൻ കോൺടാക്റ്റ് ചെയ്തോളാം എന്തെങ്കിലും ഓക്കെ നിങ്ങളെന്തായാലും ആ റൂംസിൻ്റെയൊക്കെ ഒരു ഫോട്ടോ എനിക്ക് വാട്സ്ആപ്പ് ചെയ്തേക്ക് ഞാൻ നോക്കിയിട്ടേതാണ് വേണ്ടതെന്നൊക്കെ ചൂസ് ചെയ്തിട്ട് നിങ്ങളോട് പറഞ്ഞുതരാം ഓക്കെ എന്നാൽ ആയിക്കോട്ടെ താങ്ക്യു കേട്ടോ